ഞാനൊരു ജാക്കറ്റ് ഓഡർ ചെയ്തായിരുന്നു ജാക്കറ്റ് ഓഡർ ചെയ്തു കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് അതിൻ്റെ കളർ എനിക്കിഷ്ടമായില്ല പിന്നെ അതിൻ്റെ സൈസും ചെറുതാണ് പിന്നെ അതിനത്ര ഭംഗിയൊന്നും പോരാ അതിൻ്റെ തൂ പിന്നെ അതിന് അധികം കോളിറ്റിയുള്ളതായിട്ടും എനിക്ക് തോന്നിയില്ല പിന്നെ റേറ്റും ഇത്തിരി കൂടുതലാണ് ഞാൻ വേറൊരു ആപ്പിൽ സർച്ച് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ നല്ല കളറും നല്ല സൈസുള്ളതും നല്ല ഭംഗിയുള്ള ജാക്കറ്റ് കണ്ടായിരുന്നു അപ്പം എനിക്ക് ഇത് എനിക്ക് കാൻസൽ ചെയ്യാൻ കാൻസൽ ചെയ്യണമായിരുന്നു പിന്നെ തണുപ്പത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ജാക്കറ്റ് പക്ഷേ ഇതിലധികം ചൂട് നിൽക്കുമെന്നു തോന്നുന്നില്ല അപ്പം വേറൊരു ആപ്പിൽ ആണെങ്കിൽ അതിൽ നല്ല ഭംഗിയും ഉണ്ട് നല്ല സൈസുമാണ് പിന്നെ റേറ്റും കുറവാണ് അത് അതു വാങ്ങിക്കാൻ അതു നോക്കാനായിരുന്നു ഇപ്പം ഇതൊന്ന് കാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുമോയെന്നറിയാൻ വേണ്ടിയിട്ടാണ്